അതായത് എപ്പഴെങ്കിലും എൻ്റെ പ്ര അതായത് പിന്നെ പാചകം നമുക്ക് വിനോദ വൃത്തിയായിട്ട് നമുക്കൊരു വ്യവസായംപോലെ നമുക്ക് ചെയ്യാൻ പറ്റു ചെയ്യാൻ ഓർത്തിട്ടുണ്ടോന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടുതവണ ഓർത്തിട്ടുണ്ട് കാരണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ഹോട്ടലുകളിലൊക്കെ നല്ല ചെലവ് കാര്യങ്ങളൊക്കെ ആണ് അപ്പം ചെറുതായിട്ടൊരു രാത്രിയൊക്കെ നൈറ്റ് തട്ടുകട കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കണം എന്നൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ക്യാഷ് കാര്യങ്ങളൊന്നും നമുക്ക് കയ്യിലില്ലാണ്ട് നമുക്കൊന്നും നടക്കാൻ പറ്റില്ല പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കില് തട്ടുകടയൊക്കെ നടത്തണമെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നഗര സഭേൻ്റെ ഇത് അനുമതി വേണം പിന്നെ അതുപോലെത്തന്നെ ഈ വണ്ടിലൊക്കെ ചെയ്യാനാണ് നമുക്ക് നമ്മളൊരു പ്ലാൻ ചെയ്യുന്നത് അപ്പം അതിനുള്ള വണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടണം അപ്പം അതൊക്കെ അത്യാവശ്യം ലാഭമുള്ളൊരു ഏർപ്പാടെന്നു നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പം മെയിനായിട്ടെന്നു വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് സാമ്പത്തികമായിള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് നമുക്ക് തുടങ്ങാൻ പറ്റാത്തത് കുടുംബത്തിലൊ കുടുംബത്തിലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് അതായത് നമ്മളെന്തിനാണെങ്കിലും നമ്മളാദ്യമൊരു ഇൻവെസ്റ്റ്മെൻ്റ് നടത്തണം എന്നാലെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ സാമ്പത്തികം ഒരു പ്രതിസന്ധി മൂലമാണ് നമുക്കത് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്